തീർച്ചയായും കായിക വിനോദം ആളുകളിൽ വളരെ അധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് അതിപ്പോൾ പരസ്പരം സഹകരിക്കുവാൻ ആണെങ്കിലും പരസ്പരം ബഹുമാനിക്കാനും പരസ്പരം സ്നേഹിക്കാനും എല്ലാത്തിനും ഒരു കായിക വിനോദം ആളുകളിൽ വളരെ അധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് അപ്പോൾ ഒരു നമ്മളൊരു കായിക ഇനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു ടീം ആയിട്ടായിരിക്കും മത്സരിക്കുക അത് കൊണ്ട് തന്നെ പരസ്പരം നമ്മൾക്ക് മനസിലാക്കാനും അവരെ ബഹുമാനിക്കാനും അവരുമായി സഹകരിക്കാനും ഉള്ള കഴിവ് ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള കഴിവ് ഒരു കായിക വിനോദത്തിന് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ നമ്മുടെ ഇപ്പോൾ ഒരു ഒരു കളിക്കുമ്പോൾ അതിന്റെ നമ്മുടെ കോച്ചിനെ ബഹുമാനിക്കാനും പഠിക്കുന്നു നമ്മൾ അതുപോലെ പല പല സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും കായിക വിനോദങ്ങൾ സഹായിക്കുന്നുണ്ട്